നമ്മൾ വ്യവസായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന അച്ചാറുകൾ ചെറുനാരങ്ങ അച്ചാർ പിന്നെ നമുക്ക് മീനും വാങ്ങിയിട്ട് മീനച്ചാർ ഇടാം പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടി നമുക്ക് അച്ചാറുകൾ അച്ചാർ നമ്മൾ വിചാരിക്കും പോലെയല്ല നല്ല ഒരു വ്യവസായമായി കൊണ്ട് നടന്നാൽ നല്ലൊരു പൈസ നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ഉണ്ടാക്കാനാകും കാരണം അതിൽ അച്ചാർ പൊടികൾ തന്നെ ഇടണം എന്നൊന്നുമില്ല അച്ചാർപൊടി മേടിക്കണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമായ അച്ചാർ പൊടികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അച്ചാറുകൾ ഇട്ട് ഉപയോഗിക്കാം നല്ല രുചിയും ആർക്കും ഇഷ്ടപെടും കാരണം അച്ചാർ എന്ന് പറഞ്ഞു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് കുറെ മുളക്പൊടിയും വേറെ എന്തൊക്കെയോ സാധനങ്ങളും ഒക്കെ കുത്തിക്കലക്കി ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്നത് അല്ലെന്ന് വിചാരിച്ചിട്ട് ഒരു മായവും ചേർക്കുന്നില്ല കാരണം അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അച്ചാറിൽ വെറും കടുകും പൊടിച്ചാൽ തന്നെ നല്ല മാങ്ങ അച്ചാർ ഒക്കെ ഉണ്ടാക്കാം മാങ്ങകൾ ഒക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം മാതിരി കിട്ടുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ നമ്മൾ ചെറുനാരങ്ങ ഇതൊക്കെ നമുക്ക് കിട്ടും അതൊക്കെക്കൂടി അച്ചാറിട്ടിട്ട് ഇട്ടിട്ട് എന്ത് രുചിയിൽ കഴിക്കാം അതോടൊപ്പം ഒരു വ്യവസയത്തിലേക്ക് മാറ്റാം അച്ചാർ നമുക്ക് നല്ലൊരു വ്യവസായമായിട്ട് മാറ്റാവുന്നതാണ്